ഇന്ന് പ്രദേശത്ത് നേരിടുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക വെല്ലുവിളിയെന്നു പറഞ്ഞാൽ മലിനീകരണമാണ് മലിനീകരണം ഇപ്പം മുൻസിപ്പാലിറ്റിയിൽ നിന്നും ആളുകൾ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നൊരു സമ്പ്രദായം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പലയിടങ്ങളിലാണെങ്കിലും അതെല്ലാം കറക്ടായിട്ട് കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട് മറ്റു ചില സ്ഥലങ്ങളിലത് കൊണ്ടു പോകുന്നില്ല വീടുകളിൽ തന്നെ തിങ്ങി നിറയുകയാണ് ഇപ്പം എൻ്റെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീട്ടിൽ ഇവർ എത്തുന്നില്ല എന്നൊരിത് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ധാരാളം പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും അവർ സൂക്ഷിച്ച് വെക്കുകയാണ് അവരെടുക്കാൻ വരുമെന്നു വിചാരിച്ച് പക്ഷേ അവർ വരുന്നതായി കാണുന്നില്ലെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ അവയൊക്കെ സംരക്ഷിക്കാൻ നമ്മളിപ്പം അവർ വരുന്നതും കാത്ത് നിൽക്കുകയാണ് പിന്നൊരു പ്രധാന വെല്ലുവിളിയെന്നു പറയുന്നത് റോഡാണ് ഇന്ന് പരിസ്ഥിതി റോഡ് നിർമ്മാണമൊക്കെ നല്ല രീതിയിൽ നടത്തണം പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പല ബിൽഡിങ്ങുകളും എല്ലാം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഭൂമിയ്ക്ക് വളരെയധികം ഭാരം താങ്ങാത്ത വിധത്തിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്